എന്തായിരുന്നു വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പനി ജലദോഷം മാത്രമാണോ അ ചുമയുണ്ടോ മഴ കൊണ്ടിരുന്നോ തണുപ്പ് ക്ലൈമറ്റ് ചേഞ്ച് അതുപോലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ശ്വാസ തടസ്സം ശ്വാസ തടസ്സം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ ഇപ്പോൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ പാരസെറ്റാമോള് കഴിച്ചിരുന്നോ രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ എന്താ ഒരു മരുന്നും ചെയ്തില്ല വേറെ എന്താ ബുദ്ധിമുട്ട് പറഞ്ഞത് നടുവേദനയോ അതെ നടുവേദനയും പിന്നെ വേറെന്താ പറഞ്ഞേ ജലദോഷം ഉണ്ടോ നന്നായിട്ട് ചുമക്കുമ്പോൾ നല്ല വേദന കാര്യങ്ങള് ഉണ്ടോ ടോൺസിൽസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നോ തൊണ്ട തടിപ്പ് ഉണ്ട് അത് അത്ര നാളായി ചെറുതിലേ ഉള്ളതാണോ ചെറുതിലേ ഉള്ളതാണ് അതിന് മരുന്ന് കഴിക്കുന്നുണ്ടോ

അതെ ഉപ്പുവെള്ളം കൊള്ളാറുണ്ടോ ഓക്കെ തണുപ്പുള്ള ഭക്ഷണം കഴിക്കാറുണ്ടോ അ അതോ തണുപ്പുള്ള ഭക്ഷണം ഒക്കെ ഒഴിവാക്കുക ചൂടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക നന്നായിട്ട് ഉപ്പുവെള്ളം തൊണ്ടയില് പിടിക്കുക